മാധ്യമ സ്വാതന്ത്രെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഈ കാലത്ത് അവതരിക്ക അവതരിപ്പിക്കപ്പെടുന്ന എല്ലാ വാർത്തകളും സത്യസന്ധമാണെന്ന് പറയാൻ എനിക്ക് പ്രയാസമുണ്ട് കാരണം പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഒരു കാരണം കേ ആരുടെ കയ്യിൽ നിന്നെങ്കിലും എന്തെങ്കിലുമൊരു തെറ്റ് സംഭവിച്ചാൽ അത് ഒരാൾ രണ്ടാമതൊരാളുടെ അടുത്ത് പറയുന്നതായിരിക്കത്തില്ല മൂന്നാമതൊരാള് കേൾക്കുന്നത് മൂന്നാമതൊരാൾ കേൾക്കുന്നതായിരിക്കത്തില്ല നാലാമത് ഒരാളുടെയടുത്ത് ഈ മൂന്നാമത്തവൻ പറയുന്നത് അതുപോലെ ചിതിൻ ചിന്നിച്ചിതറി ചിന്നിച്ചിതറി വാർത്തകൾ പലരീതിയിലും പല ഭാവത്തിലോട്ടും പോകുന്നു അപ്പോൾ സത്യസന്ധമായ വാർത്ത എവിടെ കിടക്കുന്നു എന്നും തെറ്റായ ധാരണകൾ എവിടംവരെ എത്തിയെന്നും ഉള്ള കാര്യം ആർക്കും അറിയാതെ പോകുന്നു ഇപ്പോൾ മാധ്യമത്തെക്കുറിച്ച് ഉള്ള അഭിപ്രായം എന്തെന്ന് ചോദിച്ചാൽ മാധ്യമങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം ഒത്തിരി ദുരു ദുരുപയോഗം ചെയ്യുന്നുണ്ട് മാധ്യമപ്രവർത്തകർ എവിടെയും ഏതു സാഹചര്യത്തിലും നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നവരാണ് അവർക്കൊരു വാർത്ത മാത്രം മതി അതിനെപ്പറ്റി അതെങ്ങനെ വരുന്നു എന്നോ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നോ എന്നും ഒന്നും അവര് ചിന്തിക്കാറില്ല ഇപ്പോൾ തന്നെ നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടെ മാധ്യമ പ്രവർത്തകർ വന്ന് അവർ അവൻ സത്യസന്ധമായ വാർത്തകൾ പറയുന്നുണ്ട് എങ്കിലും അതിൽ അസത്യമായ വാർത്തകളും അവരുടെ ഭാഗത്തു നിന്നും സംഭവിക്കുന്നുണ്ട് ഒരു കേസ്കെട്ടിൽ മാത്രമല്ല പല പല പല കാര്യങ്ങളിലും പല കേസിലും ഇത് അനിവാര്യ അന്വര്ഥമായിട്ട് വന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങൾ അവരുടെ ആ ഒരു വാർത്ത ശരിയായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും അത് അംഗീകരിക്കുകയും മാധ്യമത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അവതരിപ്പിക്കുന്ന വാർത്തകളെല്ലാം ശരിയാണെന്ന് ആരും ധരിക്കാതിരിക്കുകയും വേണ്ട സത്യസന്ധമായ വാർത്ത എവിടെ കൊടുക്കുന്നോ അവരെന്നേക്കും വിജയിക്കും മാധ്യമങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം ദുരൂപയോഗം ചെയ്യാതിരിക്കുന്നത് അവർക്ക് ഏറ്റവും നല്ലതാണ് സമൂഹമാധ്യമം നല്ല വശവുമുണ്ട് സമൂഹമാധ്യമത്തിന് നല്ല വശവുമുണ്ട് ചീത്ത വശവുമുണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം കണ്ടുവളരുന്നത് മാധ്യമങ്ങൾ ഫോണില് ഫോൺ മാധ്യമമായാലും പത്രമാധ്യമമായാലും ഇപ്പോൾ നമ്മുടേ ദേവാലയങ്ങളെ കുറിച്ച് നമ്മുടെ ക്രിസ്ത്യാനികളെ കുറിച്ചും നമ്മുടെ വൈദികരെ കുറിച്ചും സന്യസ്തരെ കുറിച്ചും ഒക്കെ അസത്യമായ കാര്യങ്ങൾ പലതും പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഒരു കത്തോലിക്കാ സഭ സഭയെ പറ്റി തന്നെയും പല വ്യാജവാർത്തകളും ഇന്ന് ഇപ്പോൾ സുലഭമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സത്യസന്ധമല്ല സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്നവന് എല്ലാക്കാലവും എവിടെയും വിജയിക്കും വാർത്തകളവതരിപ്പിക്കുമ്പോൾ വാർത്തകളവതരിപ്പിക്കുമ്പോൾ അത് അതിൻറ്റേതായ തനിമയോടുകൂടി അവതരിപ്പിക്കുവാനായിട്ട് എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധിക്കണം മാധ്യമപ്രവർത്തകരുടെ ധർമം എന്ത് എന്തെന്നാണ് മാധ്യമപ്രവർത്തകരുടെ ധർമ്മം ഒരു വാർത്ത സത്യസന്ധമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എത്തിക്കുക എന്നതാണ് എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അതിലൂടെയുള്ള അറിവുകൾ ലഭിക്കുകയുള്ളു ഇപ്പോള് ഫോണിലൂടെ വരുന്ന വാർത്തകളെല്ലാം സത്യസന്ധ സത്യസന്ധമാകണമെന്നില്ല പത്രത്തിലൂടെ വരുന്ന വാർത്തകളെല്ലാം സത്യസന്ധമാകണമെന്നില്ല എന്നാൽ എല്ലാം സത്യസന്ധമാണെന്ന് എല്ലാം അസത്യമാണെന്ന് പറയാ പറയാതിരിക്കാനും പറ്റില്ല സത്യവുമുണ്ട് അസത്യവുമുണ്ട് നമ്മൾ നമ്മ നമ്മൾ നമ്മള്ക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ കഴിവുകളെ ഉപയോഗിക്കുക സ്വാതന്ത്ര്യ മാധ്യമങ്ങൾ അവരുടേതായ സ്വാതന്ത്ര്യം കൈ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നില്ക്കുവാനായിട്ട് ശ്രമിക്കുക കൊച്ചുകുട്ടികൾ പത്രം വായി വായിച്ചു തുടങ്ങുമ്പോൾ അക്ഷരങ്ങൾ വായിച്ച് തുടങ്ങുമ്പോൾ ഒരു പത്രമെടുത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങളും ചൂണ്ടി ചൂണ്ടി വായിക്കുവാനായിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും എല്ലാ വീടുകളിലും ഇന്ന് പത്രം വരുത്തുന്ന വീടുകളാണ് ഒട്ടുമിക്ക നമ്മുടെ നമ്മുടെ കത്തോലിക്കാ സഭയിലെ ഒട്ടു ഒട്ടുമിക്ക എല്ലാ വീടുകളിലും നമ്മൾ പത്രം ദീപിക പത്രം വരുത്തുന്നുണ്ട് എല്ലാവരും ദീപിക പത്രം വായിച്ചു വളരുക കുട്ടികളെയെല്ലാം പത്രം വായിക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുക